ഇൻറ്റർനെറ്റ് ബാങ്കിങ് സംവിധാനം വീട്ടിൽ ഇരുന്ന് തന്നെ ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നേരത്തെ ഉള്ളതിലും ഇപ്പോൾ വ്യത്യാസം ഇത് രാവിലെ ഉച്ചക്ക് ബുക്കെല്ലാം എടുത്ത് എഴുതി അവിടെ ചെന്ന് ക്യു നിന്ന് കുറച്ചുനേരം അവിടെ വഴക്കെല്ലാം ഉണ്ടാക്കി ബന്ധപ്പെട്ടൊക്കെയായിരിക്കും ചിലപ്പോൾ പൈസ എടുത്തുകൊണ്ട് ആദ്യത്തെ ആഴ്ചയില് വരുന്നത് പക്ഷേ ഇപ്പോഴങ്ങനെ അല്ല വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് കൊണ്ടുവന്ന് പൈസ എത്തിച്ചുകൊടുക്കാൻ നമുക്ക് ഇൻറ്റർനെറ്റ് വഴി നമുക്ക് ട്രാൻസ്ഫറേയ്ത് കൊടുക്കാനും കഴിയും അതുപോലെതന്നെ കടകളിലും ഒക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണെങ്കിലും പ്രതേകം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഗൂഗിൾ പേ വഴി നമ്മള്ക്ക് ബാങ്കിങ് വേണ്ട ഇടപാടുകൾ നടത്താനും കൊണ്ടൊക്കെ കഴിയുന്നുണ്ട് അത് വളരെ സൗകര്യമാണ് പക്ഷെ ഞാനും ഓൺലൈനായിട്ടുള്ള പണവ്യാപാരത്തിൽ അത്ര വിശ്വാസക്കുറവൊന്നുമില്ല പക്ഷെ നമ്മള് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആൺലൈൻ പണവ്യാപാരം ആവശ്യമില്ലാത്ത ഒ റ്റി പി അങ്ങനുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കില് നമ്മള് അനാവശ്യമായിട്ടൊന്നും അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയോ അതങ്ങ് നെഗ്ലെറ്റേയ്ത് വിടണം ഓർമിക്കാതെ അവിടെ തൊട്ടുനോക്കിയാൽമതി അത് ടച്ചെയ്ത് ഒ റ്റി പി അങ്ങോട്ട് പോവും അത് വല്ല പ്രശനങ്ങളുണ്ടാകും അതുകൊണ്ട് നമ്മള് വളരെ സൂക്ഷിച്ച് വേണം ഇതിൽ ബാങ്കിങ് കാര്യങ്ങളില് നമ്മുടെ ഇൻറ്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കേണ്ടത്